മലയാളം എന്നു പറഞ്ഞ ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത തരമായുള്ള ഒരു ഭാഷയാണ് അത് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടുകട്ടി വാക്കുകളും അപ്പം അത് വേറെ ഏതെങ്കിലും ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും കർണ്ണാടക ആണെങ്കിലും അതിനകത്തൊന്നും അങ്ങനെ കടുകട്ടി വാക്കുകൾ എന്നു പറഞ്ഞാൽ ഇനി ഇല്ല പക്ഷെ നമ്മുടെ മലയാളത്തിൽ കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെ കൂടുതലാണ് കാരണം എന്നു വച്ചാൽ യ ഴ യ ര ല വ ശ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പല വാക്കുകളൊക്കെയുണ്ട് ഇതൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടു കടുകട്ടി വാക്കുകളാണ് ചിലവർക്ക് ഇത് ഇങ്ങനെ പഴം എന്നു പറയുന്നത് തന്നെ പയം എന്നുതന്നെയാണ് വരിക അപ്പോൾ അതൊക്കെ കുറച്ച് വ്യത്യസ്തപരമായുള്ള ഭാഷയാണ് മലയാളം ഉത്ഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചത് മലയാളത്തിൽ എഴുത്തച്ഛൻ അങ്ങനെ കുഞ്ചൻനമ്പ്യാർ അങ്ങനത്തെ കുറേ ആൾക്കാറുണ്ട് മലയാളത്തിലെ സാഹിത്യകാരൊക്കെ അവർക്കൊക്കെ നല്ല കടുകട്ടി വാക്കുകളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അവർ രചിക്കും എല്ലാ കാര്യവും ചെയ്യുമായിരുന്നു ഇപ്പം മലയാളം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വികസിക്കാനായിട്ടൊന്നുമില്ല ഇപ്പം മലയാളം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ വേണ്ട കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ മലയാളം എന്താ പറയുക എല്ലാവരും ഒഴുവാക്കി അങ്ങനത്തെ ഒരു ഇതിലാണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ കുറച്ചും കൂടി മലയാളത്തെ കുറച്ചും കൂടി സ്നേഹിക്കുക മാതൃഭാഷയെ കുറച്ചും കൂടി സ്നേഹിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് മലയാളത്തെ നമുക്ക് കൊണ്ടുനടക്കാനും എല്ലാത്തിനും നല്ലതാണ് ഇപ്പോൾ മലയാളം നല്ലൊരു ഭാഷ ആണ് അപ്പം എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ മലയാളം എന്നു പറഞ്ഞ ഒരു ഭാഷയ്ക്ക് ഭാഷയെ വെല്ലാൻ വേണ്ടിയിട്ട് വേറൊരു ഭാഷ ഇല്ലാണ്ട് നമുക്ക് അടിപൊളി ആയിട്ട് മലയാള ഭാഷയെ കൊണ്ടുനടക്കാം